വരൂ വരു ഇവിടെ നമുക്ക് ഒരുപാട് പൂക്കളുണ്ട് ഒരുപാട് വെറൈറ്റിസ് ഓഫ് പൂക്കൾ നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഏതൊക്കെയാ വേണ്ടത് എന്താ വേണ്ടത് നിങ്ങൾക്ക് ഓ അപ്പോൾ കുറച്ച് ബൽക്കായിട്ട് തന്നെ വേണം അല്ലെ ഓക്കേ അപ്പോൾ നമുക്കിവിടെ ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട് ഈ കാണുന്ന കളറൊക്കെള്ളതാണ് നമുക്കിപ്പോൾ ഓറഞ്ചുണ്ട് മഞ്ഞയുണ്ട് ചുവപ്പ് നീല അതേപോലെ ഈ കാണുന്ന കളറൊക്കെയുണ്ട് പൂക്കള് അവൈലബിളാണ് അവൈലബിളാണ് വെള്ളയൊക്കെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഏതൊക്കെ പൂവാ വേണ്ടത് ഇപ്പോൾ ചെണ്ടുമല്ലിണ്ട് ഇവിടെ ചെണ്ടുമലി തന്നേ രണ്ട് മൂന്ന് കളറ് വരുന്നുണ്ട് അതേപോലെ റോസാപ്പൂ ഉണ്ട് പിന്നെ ജമന്തി വാടാമല്ലി വാടാമല്ലി രണ്ട് കളറ് വരുന്നുണ്ട് കേട്ടോ ആ വാടാമല്ലി രണ്ട് കളറ് വരുന്നുണ്ട് ഒന്ന് നമ്മുടെ ഒരു വയലറ്റ് കളറിലും പിന്നെ ഒന്ന് ആ അതെന്നേ പിന്നെ നമുക്ക് ഇവിടെ കേരളത്തിലല്ലാതെ പുറത്ത് നിന്ന് ഒരു കളറ് വരുന്നുണ്ട് ഒരു ഇളം നീല പോലത്തെ ഒരു കളറ്

ആ ഇല്ല അതും നമുക്കവൈലബിളാണ് അപ്പുറത്തിരിക്കുന്നുണ്ട് നമുക്കെതക്കെയാ വേണ്ടേന്നക്ക പറഞ്ഞ്തന്നാ നമുക്ക് അതിനനുസരിച്ചിട്ട് എടുക്കാം ഇതിപ്പോ പതിനഞ്ചടി പറയുമ്പോ ഒരുപാട് വേണോല്ലോ പൂ ഇതിലെല്ലാം ഉണ്ട് പത്തുകിലോ തന്നെണ്ടാവും എടുക്കാൻ നിങ്ങൾക്ക് എന്നേയ്ക്കാണ് പൂവ് വേണ്ടത് ഇ നാളേക്കാണോ ഓ അതേയ് അപ്പോൾ നാളെ രാവിലേയ്ക്ക് നമുക്കിപ്പോൾ ഉള്ള അവൈലബിളായിട്ടുള്ള എല്ലാ പൂവും നമുക്കിപ്പോൾ എടുത്തുതരാൻ പറ്റും പിന്നെ ബാക്കിയുള്ളത് ഇന്ന് വൈകുന്നേരത്തോ ഇല്ലെങ്കിൽ നാളെ രാവിലെയാവുമ്പഴേക്കും നമുക്കത് പാക് ചെയ്ത് വച്ച് പറഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ റെഡി ആക്കാൻ പറ്റും അല്ല നമുക്കിപ്പോൾ കിലോ റേറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ചെണ്ടുമല്ലിക്ക് ഒരു റേറ്റ് ആണ് എല്ലാത്തിനും കളർ എല്ലാം ഒരു റേറ്റാണ് അതെപോലെ പൂക്കള് മാറുമ്പോൾ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് അതേപോലെ റോസാപ്പൂ താമര ഇങ്ങനെയുള്ള പൂക്കളൊക്കെ എണ്ണത്തിനാണ് റേറ്റ് വരുന്നത് നിങ്ങളിപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ പാക് ചെയ്ത് വൈകുന്നേരം ആവുമ്പോഴേക്കും പാക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കാം ഒക്കെ പത്തുകിലോ പത്തുകിലോ വച്ചെടുക്കാം എന്നിട്ട് നമുക്കിപ്പോൾ നാ നിങ്ങൾക്ക് നാളേക്കാണെന്നല്ലേ പറഞ്ഞത് ഇന്ന് വൈകുന്നേരത്ത് നിങ്ങൾ കൊണ്ടുപോകുവാണെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ വന്നിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എടുത്താലും മതിയാവും രാവിലെ വന്നാൽ മതി രാവിലെ ഞങ്ങള് ഒരു അഞ്ചുമണിയാവുമ്പോഴേക്ക് ഷോപ് ഓപ്പണാകും അപ്പോൾ കട തുറക്കുമ്പഴേക്കും നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് എടുത്തിട്ട് പോവാം അല്ലെ നിങ്ങൾ ഇന്നെട് അല്ലെ നിങ്ങൾ ഇന്നിപ്പെടു അ അല്ലെങ്കിൽ ഇന്നിപ്പം എടുത്തിട്ട് പോകുവാണെങ്കിൽ നമ്മള് ശ്രദ്ധിക്കണം ഇന്നെടുത്തിട്ട് പോകുവാണെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ട് പോയി ഉടനെ ഇത് കവറിന്നഴിച്ച് വെള്ള എഡ് വെള്ളംതളിച്ച് കാറ്റ് പോവുന്ന പോലെ വെക്കണം മറ്റേത് ഇവിടുന്നാണെങ്കില് നിങ്ങൾ നാളേയ്ക്ക് പാക് ചെയ്താൽ മതിയെങ്കിൽ നാളെ രാവിലെ ഒരാറ് മണിയാവുമ്പഴേക്കും പാക്ക് ചെയ്യാം നിങ്ങൾ ഏഴുമണിയാവുമ്പഴേക്കും പൂക്കളമിടാൻ പറ്റുന്ന പോലെ ഓക്കേ അപ്പോൾ നമുക്കിപ്പോൾ ഇതിനിപ്പോൾ ചെണ്ടുമല്ലിക്ക് പത്തുകിലോ ഒരുകിലോന്ന് വന്നിട്ട് അമ്പതുരൂപയാണ് എല്ലാ ചെണ്ടുമല്ലിയും ഇനി വാടാമല്ലി വന്നിട്ട് അറുപത് രൂപയാണ് ആ രണ്ടിനും റോസാപ്പൂവിനു ഒന്ന് വന്നിട്ട് എട്ടുരൂപയാണ് ഒരു റോസാപ്പൂ റോസ്സാപ്പൂവിൻ്റെ റോസ്സാപ്പൂവിൻ്റെ റെഡ് കളറ് മാത്രമാണ് എട്ടുരൂപ ബാക്കിയൊക്കെ പത്തുരൂപ വരുന്നുണ്ട് എല്ലാം ഉണ്ട് എല്ലാം അത് തന്നെ ഈ റോസ് കളർ റെഡ് റോസിനു മാത്രമാണ് നമുക്ക് ഇതുവരുന്നത് പത്ത് എട്ട് രൂപ വരുന്നത് ബാക്കിയൊക്കെ നമുക്ക് പത്തുരൂപായാണുവരുന്നത് നീല അങ്ങനെയുള്ള കളറൊക്കെ പത്തുരൂപ വരുന്നുണ്ട് യെല്ലോ ഒക്കെ ഇപ്പോൾ ഇതൊക്കെ എത്രയെണ്ണം വേണം റോസ് ഒക്കെ എത്ര എണ്ണം വേണം ആ അല്ല റോസ് മാത്രം എണ്ണത്തിലാണേ റോസ് എണ്ണത്തിലാണ് എണ്ണമാണ് ഒരെണ്ണം അങ്ങനെ എത്രയെണ്ണം വേണമെന്ന് ചോദിക്കുവ ആ അമ്പതെണ്ണം മതി അല്ലെ ഓക്കേ ദേ ഈ കാണുന്ന വലിപ്പം തന്നെയാണ് മീഡിയം നമുക്കിപ്പോൾ ഇത് കളയൂല്ലൊ നമ്മള് പൂക്കള് ഇതൾ എടുക്കുമല്ലൊ പൂവിടാൻ അപ്പോൾ നമുക്ക് ഒരു അമ്പതെണ്ണം മതിയാവും പിന്നേ ചെണ്ടുമല്ലി അതെപോലെ എല്ലാം പത്തുകിലോ പത്തുകിലോ വെച്ചെടുക്കാം പിന്നെ വാടാമല്ലി ആ മുല്ലപ്പൂവുണ്ട് മുല്ലപ്പൂ ഉണ്ട് നമ്മുടെ കയ്യിൽ അത് കിലോ വന്നിട്ട് എൺപതുരൂപയാണ് അത് ആ എത്ര കിലോ വേണ്ടിവരും അത് നമുക്ക് ഒരുമിച്ച് പാക്ക്ചെയ്യാം ഓക്കേ ഇതിപ്പോൾ എമൗണ്ട് റൗണ്ടായിട്ടിപ്പോൾ ഇത്രയും പൂക്കള് പറയുമ്പോൾ ഒരു ഏഴുരൂപ ആറുരൂപ ഏഴുരൂപെൻ്റടുത്തുവരും പതിനഞ്ചടി പറയ് ഇല്ല നമുക്കിപ്പോൾ ചെറിയൊരു അഡ്വാൻസ് ഇപ്പോൾ തരേണ്ടി വരും ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപെൻ്റയടുത്ത് പിന്നെ ബാക്കി നിങ്ങൾ രാവിലെ വരുമ്പോൾ തന്നിട്ട് പേ ചെയ്തിട്ട് കൊണ്ടുപോയാലും മതി ഇപ്പോൾ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പേ ചെയ്യുക ഗൂഗിൾപേ ചെയ്ത് തരുവോ അഡ്വാൻസ് ഓ ഓക്കേ ഓക്കേ മതി ഓക്കേ ഓക്കേ ശരി ശരി ശരി ഓക്കേ താങ്ക്യൂ